ആ ഞാൻ വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കാരണം കേക്ക് ഉണ്ടാക്കാൻ കുറച്ച് ചെലവേറിയ കാര്യമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഒരുപാട് ഉണ്ടാകുന്ന രീതികൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആദ്യായിട്ടാണ് വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ മറ്റേ വാനില എസ്സെൻസും മറ്റും കൊക്കോ പൗഡർ സോഡാ പൊടി മുട്ട അങ്ങനെ ആദ്യം ഗോതമ്പ് വെച്ചിട്ടാണ് സിംപിളായിട്ടാണ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് പിന്നീട് മൈദാ ഉപയോഗിച്ചിട്ടും ചെയ്തു വളരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കാരണം കേക്ക് നന്നായിട്ട് വന്നു എന്ന് തന്നെ പറയാം